പിന്നെ പ്രിയപ്പെട്ട മാസം എന്ന് പറയുന്നത് ചിങ്ങമാസമാണ് ഓണം വരുന്ന മാസം എല്ലായിടത്തും പൂക്കളെ കൊണ്ടും വർണ്ണങ്ങളെ കൊണ്ടും എല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന ഒരു കാലഘട്ടം ഓരോരോ എന്താ പറയാ നമ്മളുടെ വില്പനങ്ങളിൽ നോക്കിയാലും വസ്ത്രം വിൽപ്പനയും അതുപോലെത്തന്നെ ഇലക്ട്രോണിക്ക്സ് ഉപകരണങ്ങളും എല്ലാം തന്നെ ഡി റിബേറ്റിലും ഡിബേറ്റിലും ഡിസ്കൗണ്ടിലും കിട്ടുന്ന ഒരു കാലഘട്ടം പിന്നെ എവിടെ നോക്കിയാലും പൂക്കൾ മഞ്ഞ ഓറഞ്ച് അങ്ങനെ രീതിയിൽ ഒരു കളർ ഫുൾ ആയിട്ടുള്ള ഒരന്തരീക്ഷം പലയിടത്തും കാണാം പിന്നെ എല്ലാവരും നല്ല സെറ്റും മുണ്ടും കാര്യങ്ങളൊക്കെ ഉടുത്ത് സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിരിക്കുന്ന ഒരു കാലഘട്ടം